ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി നാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി അഞ്ച് പത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഇരുപത്തിയാറ് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഇരുപത്തി ഏഴ് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട്